ഹലോ അതേ ആ ആ അപ്പം നമുക്ക് എല്ലാ ദിവസവും തന്നെ ജിമ്മി വരണം വർക്കൗട്ട് തുടങ്ങിയാൽ പിന്നെ അതിനനുസരിച്ച് ജിമ്മി വരുന്നതാണ് നല്ലത് എവിടെയാണ് സ്ഥലം എവിടെയായിരുന്നു ആ ഓക്കെ അപ്പം നമ്മുടെ അടുത്ത് തന്നെ ജിമ്മൊണ്ടപ്പം അവിടെ വരാണേൽ നല്ലതായിരുന്നു പിന്നെന്താ എങ്ങനത്തെ വർക്കാണ് എങ്ങനത്തെ വർക്കൗട്ടാണ് നോക്കുന്നത് അതിപ്പം ഒരോരുത്തരുടെ വർക്കൗട്ട് പോലിരിക്കും ഇപ്പം നമ്മൾ ഇപ്പം എനിക്കാണേൽ ഞാൻ ചെറിയൊരു ആളാണേലിപ്പം ഞാൻ ഏറ്റവും കണ്ടിരിക്കുന്നത് വണ്ണം വെക്കുവാണ് ചെയ്യുന്നത് അപ്പം വണ്ണം കുറയ്ക്കുകയാണേൽ നമുക്ക് കുറച്ചൂടെ ടൈമെടുക്കും അത്പോലെ നോക്കിയിട്ട് വേണം ചെയ്യാനിപ്പം ഡയറ്റെന്ന് പറയുന്നത് നമ്മൾ ഇപ്പം ഫുഡ്ഡ് മൂന്ന് നേരം കണ്ട്രോൾ ചെയ്യണ്ട വരും ഇപ്പം കഴിക്കുന്ന ഫുഡ്ഡ് മാറ്റി നമ്മൾ എന്താ ഡയറ്റ് ചെയ്തിപ്പം രാവിലെ രണ്ട് മുട്ട അങ്ങനെ പാല് അങ്ങനെ ഡേയ്ലി ഡയറ്റെടുക്കേണ്ടി വരും ഉച്ചക്കത് പോലെ തന്നെ പിന്നെ നമ്മുടെ പ്രോട്ടീൻ പൗഡറ് പോലത്തെ കാര്യങ്ങൾ ഉപയോഗിക്കുകയാണേൽ പ്രോപ്പറായിട്ടുള്ള ക്രിയാറ്റിൻ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുവാണേൽ നമുക്ക് നന്നായിട്ട് ഡയ്റ്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും അതൊക്കെ മേയ്നായിട്ടിപ്പം എന്താ ഈ എണ്ണ കൂടുതലുള്ള പലഹാരങ്ങൾ ചീസ്സ് ഷുഗർക് നമ്മൾ ഷുഗർ കട്ടൊക്കേ നല്ലതാണ് ഈ ഡയറ്റ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ അപ്പം അങ്ങനെ നോക്കുമ്പം നല്ലൊരിതാണ്

അപ്പം അങ്ങനെ ഹോസ്റ്റൽലാണേലും കുഴപ്പമില്ല ഫുഡ്ഡ് കണ്ട്രോൾ ചെയ്യാൻ ഇപ്പം മൂന്ന് നാല് പൊറോട്ട കഴിക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ പൊറോട്ടയൊക്കെ കഴിക്കുക ആണേൽ നല്ലതായിരിക്കും പിന്നെ ഹോസ്റ്റൽലിപ്പം ചിക്കങ്കറിയാണേലോ അപ്പം കൂടുതൽ ചിക്കൻ കറി പ്രിഫെർ ചെയ്ത് ഡയ്റ്റങ്ങനെ കണ്ട്രോൾ ചെയ്യാൻ നോക്കാം പിന്നെ മാക്സിമം ചായ കുടിക്കുമ്പം പഞ്ചസാരയിടാതെ നോക്കുക അത് സ്വീറ്റ്സ്സക്കെ കഴിക്കുക അങ്ങനെ ഓയിലി ആക്കേണ്ട കുറച്ച് സാധനങ്ങൾ പതുക്കെയങ്ങ് പിന്നെന്താ അങ്ങനെ നന്നായിട്ട് പോകാണേൽ നല്ലതായിരിക്കും അതിപ്പോൾ ഓരോ വർക്കൗട്ടിനും സ്റ്റെപ്പനുസരിച്ചിട്ടിരിക്കും ഇപ്പം വണ്ണം ഉള്ളവരാന്നല്ലേ പറഞ്ഞത് അപ്പം രണ്ടോ മൂന്നോ ഇപ്പം ഒരു ഇതിപ്പം ലെമ്പർപ്രെസ്സാണേൽ നമുക്ക് ഒരു മൂന്നര പ്പഞ്ചേയാം ഇരുപതിന്റെ മൂന്നരപ്പേക്കെ ചെയ്യാം അങ്ങനെ ആ ടൈമനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഓരോ ദിവസം വർക്കിടും മണ്ടേ നമുക്ക് ചെസ്റ്റും ബൈസെടിക്കാം ബാക്ക് ചെസ്റ്റ് ഷോൾഡ്രും ബാക്കടിക്കാം അങ്ങനെ ഓരോരോ ഇത് ചെയ്യാൻ പറ്റും ആ കാലുകളിൽ ചെയ്യണം അപ്പം നമ്മൾ താടിയിങ്ങനിട്ട് ഒന്ന് ഈ ചുമ്മാതെ ഓടുക പിന്നെന്താണ് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നോക്കുക പിന്നെ വേറെന്താ നമ്മൾ നോർമ്മൽ എക്സസൈസ്സ് ചെയ്യാൻ ജെമ്മൻ ജെമ്മൻ ടാക്സക്കെ ചെയ്ത് പിന്നെ കാഡിയേ ചെയ്യാൻ പറ്റുമായിരിക്കും അപ്പം ദിവസം കുറച്ച് കാഡ്യോ വർക്ക് ചെയ്താൽ നന്നായിരിക്കും നമുക്ക് മണ്ടേ റ്റു സാറ്റർഡേ വരെയാണ്

ആ പറയ് മ് ആ ആ അപ്പം അപ്പം ഇതിപ്പം പുതിയ വർഷം തുടങ്ങിയ അപ്പം പഴയ പല രീതിയിൽ ഇത് നമുക്ക് ചെയ്യാൻ പറ്റും ഫീസ്സ്ന്നക്കെ പറഞ്ഞാൽ കുറവായിരിക്കും മറ്റുള്ളത് കുറവാണ് നമ്മുടെതീന്ന് വാങ്ങുന്നത് പിന്നെ സപ്ളിമെൻസക്കെ എടുക്കുവാണേൽ അതിന് വേറൊരു പിന്നെ വർക്കൗട്ട്സ്സ് നമുക്ക് എന്താ ഇൻഹേറ്റസ്സ് ലാക്സ്ലിൻ അങ്ങനെ കുറെ നമ്മുടെ ബോഡിക്കാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും പിന്നെ ബായ്ക്കിന് ഷോൾഡറ് ചെസ്റ്റ് ത്രൈസ്സ് ബൈയ്സ്സ് അങ്ങനെ അങ്ങനെ ഡിഫറൻറ്റായിട്ടുള്ള നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം ഓരോ ഓരോ ഏര്യാസിനും ഓരോ രീതിയിലുള്ള സങ്കിങ് മസിൽസ്സും കഡ്യോക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അതിനായിട്ടുള്ള വർക്ക്കളുണ്ട് അത് ചെയ്യണം നമ്മൾ കാഡ്യോ ചെയ്തിട്ട് മസിൽ ട്രേയ്നിങ്ങായിരിക്കും നല്ലത് സിങ്കിങ് കൂട്ടുന്നത് അപ്പം നമ്മൾ ഇപ്പം ക്രിയാറ്റിനക്കെ എടുക്കുന്ന ആളാണേൽ ആദ്യം കാഡ്യോ ചെയ്തിട്ട് പിന്നെ മസിൽസ്സിനുള്ള കാര്യങ്ങൾ നോക്കുന്നതായിരിക്കും നല്ലത് അതെ അതേ അതായതിപ്പം ഇപ്പം സപ്പ്ളിമെൻറ്റായിട്ട് ക്രിയാറ്റിനക്കെ യൂസ് ചെയ്യുന്നവരാണേൽ കാഡ്യോ വലിയ വിഷയമുള്ള കാര്യമല്ല ആദ്യം കാഡ്യോ ചെയ്ത് ഇപ്പം രണ്ടും സെയ്മാണ് ബട് ആദ്യം ചെയ്താലും ആദ്യം ചെയ്താലും അപ്പോൾ അത്രക്കെയുള്ളു പിന്നെ ഫീസ്സ് കാര്യങ്ങളൊക്കെ ഓക്കെ അത്രയുള്ളു ശരി